ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് പറയുമ്പം ബ്രിട്ടീഷ് ഭരണം എടുത്ത് പറയേണ്ടൊരു കാര്യം തന്നെയാണ് അത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ കീഴില് ആയിരുന്നു അവരായിരുന്നു ശരിക്കും ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് വലിയ സ്ഥാനം ഇന്ത്യക്കാര്ക്ക് വലിയ സ്ഥാനം ഒന്നും ഇല്ലാ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ ഭര ഭരണങ്ങളും അങ്ങനെയെല്ലാം നിയമങ്ങളും എല്ലാം തീരുമാനിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അങ്ങനെ കമ്പനിയുടെ ഭരണം ഇന്ത്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി കര്ഷക്കര്ക്ക് ആര്ക്കും പാവങ്ങള്ക്ക് ആര്ക്കും ഒരു ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഭരണം ആയിരുന്നു ശരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അത് വന്നപ്പം അങ്ങനെ ആയപ്പം ഇന്ത്യയ്ക്ക് ആ ആ ഒരു ഭരണത്തിലുള്ള അസംതൃപ്തി ഇന്ത്യ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര സമരത്തിലേക്ക് നയിച്ചത് ആ ഒരു ഭരണം അവര്ക്ക് ബുദ്ധിമുട്ടാണെന്ന് അവരെ നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞിയെ അറിയിക്കുകയും അങ്ങനെ ആ ഒരു ഭരണം നിര്ത്തലാക്കി പുതിയ ഒരു ഭരണ കം ഭരണ കമ്മറ്റി ഉണ്ടാവുകയും ചെയ്തു അതു ശരിക്കും രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണമായിരുന്നു രാജ്ഞി നേരിട്ട് ഈ ഭരണത്തിന് ഇ ഇന്ത്യയെ ഭരിക്കാന് തുടങ്ങി അങ്ങനെ ഇരുപതാം നൂണ്ടാറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഐ എന് സി ഇന്ത്യൻ നാഷ്ണല് കോണ്ഗ്രസ്സ് രൂപീകരിച്ചു ഇന്ത്യൻ നാഷ്ണല് കോണ്ഗ്രസ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാന് വേണ്ടി ഉള്ള എല്ലാ നേതാക്കളും ഒരുപാട് നേതാക്കൾ കൂടി ചേര്ന്ന് ഒരു സംഘടനയായിരുന്നു ഐ എന് സി അതുപോലെ തന്നെ വേറൊരു സംഘടന രൂപീകൃതമായതും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഈ രണ്ട് സംഘടനയും ചേര്ന്ന് ഒരുപാട് സമര സമരങ്ങളും നടത്തി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്യം ലഭിച്ചത് അതുപോലെ സ്വാതന്ത്യത്തോട് ഒപ്പം തന്നെ ഹുന്ദുക്കള്ക്കും മുസ്ലീങ്ങള്ക്കും ഇടയിലുള്ള പിരിമുറുക്കോം വന്നു അതിന് ബ്രിട്ടീഷ്കാർ ഒരു ഒരു പ്രധാന പങ്ക് ബ്രിട്ടീഷ്കാർ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയില് ഇന്ത്യയിൽ ശരിക്കും ഇൻഡ് ഇന്ത്യയിലെ മുസ്ലീങ്ങള്ക്ക് ശരിക്കും ഒരു ഭീതിയുണ്ടാക്കാന് വേണ്ടീട്ട് ബ്രിട്ടീഷ്കാർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അത് അവർ അതില് അവർ വിജയം കാണുകയും ചെയ്തു അങ്ങനെ സ്വാതന്ത്യം സ്വാതന്ത്യം വന്നപ്പോൾ ഹിന്ദുക്കള്ക്കും മുസ്ലീങ്ങള്ക്കും ഇടയില് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു അകൽച്ച ഉണ്ടായി അങ്ങനെ വര്ഷങ്ങളായി വളര്ന്നു വന്ന ആ ഒരു അകല്ച്ച മുസ്ലീങ്ങള് എപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്നത് അവർ നൂനപക്ഷമാണ് അപ്പോൾ ഹിന്ദു സര്ക്കാര് വന്ന് കഴിഞ്ഞാല് അവരെ അടിച്ചമര്ത്തും അവര്ക്ക് ഒരു സ്വാതന്ത്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലും സ്വാതന്ത്യം കിട്ടിയാലും ഇ മുസ്ലീങ്ങള്ക്ക് സ്വാതന്ത്യം കിട്ടില്ല എന്നു വെച്ചാൽ ഹിന്ദുക്കൾ മുസ്ലീങ്ങളെ അടിച്ചമര്ത്തി ജീവിക്കുമെന്ന് അവർ പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പേടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഇന്ത്യന് രൂപ ഭൂഖണ്ഡം രണ്ടായിട്ട് വിഭജിക്കുവായി ചെയ്തത് അത് ശരിക്കും അത് ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ രണ്ടായി വിഭജിച്ചു അങ്ങനെ രണ്ടായി വിഭജിച്ചപ്പം ഇന്ന് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ രൂപത്തിലേയ്ക്ക് നമുക്ക് ഒരു ഇന്ത്യ മഹാരാജ്യം ഇന്ന് കാണുന്ന രൂപത്തിലും പിന്നീട് പാകിസ്ഥാന് എന്ന് പറയുന്ന വേറൊരു രാജ്യവും ഉണ്ടാവുവാണ് ചെയ്തത് അപ്പം ഇത് ഈ ഒരു നമുക്ക് ഇപ്പം ഇങ്ങനെ ആ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാന് വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്യം നേടി തരാന് വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ള നേതാക്കളെ കുറിച്ച് പറയുമ്പം ആദ്യം എടുത്ത് പറയേണ്ട പേരാണ് മഹാത്മ ഗാന്ധി മഹാത്മ ഗാന്ധിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മഹാത്മ എന്ന് വിളിക്കുന്ന മഹാത്മാവ് ആണ് മഹത്തായ ആത്മാവുള്ള ആൾ മഹാനായ ആത്മാവ് അതാണ് മഹാത്മ എന്നു പറയുന്നത് മഹാത്മാ ഗാന്ധി അല്ലെങ്കിൽ നമ്മൾ ബഹുമാനപൂര്വ്വം ഗാന്ധിജി എന്ന് വിളിക്കും ആ ഒരു ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അഹിംസ മാര്ഗ്ഗത്തിലൂടെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്യം നേടി തന്നത് അഹിംസ മാര്ഗ്ഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആരെയും വേദനിപ്പിക്കാന് ഗാന്ധിജി ഇഷ്ടപ്പെട്ടിട്ടില്ല ഗാന്ധിജി ചെയ്യുന്നത് ശരിക്കും ആ ആരെയും വേദനിപ്പിക്കാതെ ഗാന്ധിജിക്ക് ഒരടി കിട്ടിയാല് അടുത്ത അടിക്ക് വേണ്ടി ഇപ്പുറത്തെ ഭാഗം കാണിച്ചു കൊടുക്കും ഒരു കരണത്ത് അടി കിട്ടിയാല് മറു ഭാഗം കാണിച്ചു കൊടുക്കണം എന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് ഒരിക്കലും ഒരു ആര്ഭാട ജീവിതം ഗാന്ധിജി നയിച്ചിട്ടില്ല ഗാന്ധിജി ശരിക്കും ചെയ്തത് ഒരു ഒരു ഒറ്റ തോര്ത്ത് മാത്രം ഉടുത്തിട്ടാണ് ഗാന്ധിജി ജീവിച്ചത് തനിക്ക് ഉടുക്കാനുള്ള ഡ്രസ്സ് സ്വന്തമായി നെയ്ത് ഉണ്ടാക്കിയാണ് ഗാന്ധിജി ജീവിതം മുന്നോട്ട് പോയികൊണ്ടിരുന്നത് ഗാന്ധിജി നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലും ഈ ഒരു ഇതിലും കാണുമ്പോൾ അങ്ങനെയുള്ള ഒരാളേ അല്ല ശരിക്കും ആളൊരു വക്കീലാണ് നന്നായിട്ട് പഠിച്ച് വക്കീലായിട്ടുള്ള ഒരാൾ നിയമങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പം ശരിക്കും നമുക്ക് മാതൃകയാക്കാന് പറ്റുന്ന ഒരു വ്യക്തിത്വം ആണ് ഗാന്ധിജിയുടെത് പിന്നെ അടുത്ത ആളെ പറയുയാണെങ്കിൽ ജവഹര് ലാല് നെഹ്റു അതുപോലെ തന്നെ നെറ്റ് അടുത്തത് ഡോക്ടര് അംബേദ്കർ സര്ദാര് വല്ലഭായ് പട്ടേല് ഭഗത് സിംഗ് അതുപോലെ ഡോക്ടര് രാജേന്ദ്ര പ്രസാദ് രവിന്ദ്രനാഥ ടാഗോറ് ജാന്സി റാണി അങ്ങനെ പറയ് പഴശ്ശിരാജ പഴശ്ശിരാജ നമുക്ക് കേരളത്തിൽ ശരിക്കും എടുത്ത് പറയാന് പറ്റിയ ഒരു പേരാണ് പഴശ്ശിരാജ ഇന്ത്യയുടെ സ്വാതന്ത്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയൊരു നേതാവാണ് ശരിക്കും പഴശ്ശിരാജ പഴശ്ശിരാജ കമ്പനി ഭരണത്തെ പൂര്ണ്ണമായും എതിര്ത്തിരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് പിന്നെ പിന്നെ അടുത്തത് എന്നു വച്ചിരുന്നാൽ നമുക്ക് ശരിക്കും ഒരു എന്നെ എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് ഒരു അഭിമാന നിമിഷമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇന്ത്യ സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാക്കി അത് നിലവില് വന്ന ആ ഒരു നിമിഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറാം തീയതി ഡോക്ടര് അംബേദ്കറന്റെ നേതൃത്വത്തില് ഉണ്ടാക്കിയ ഭരണഘടന ഇന്ത്യന് കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും നിലവില് വന്നു അതാണ് ശരിക്കും എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരു അഭിമാന നിമിഷമായിട്ട് എനിക്ക് രേഖപ്പെടുത്താന് പറ്റുന്നത്